ചേട്ടാ നമ്മൾ ഇവിടെ വയനാട് കാണാൻ വേണ്ടിയിട്ട് വരുവാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ അപ്പോൾ ഇവിടെ നിന്നൊരു ചേട്ടൻ നമ്പർ തന്നതാണ് അങ്ങനെ വിളിച്ചുനോക്കുന്നതാണ് അപ്പോൾ ചേട്ടാ അവിടെ നല്ല കാണാൻ നല്ല സ്പോട്ട് ഏതൊക്കെയാണ് ഉള്ളത് നമ്മൾ ഒരു നാലഞ്ച് പേരുണ്ട് അത് കൺഫർം പക്ഷെ എന്തായാലും നാലു പേര് കൺഫോമാണ് ആണല്ലെ അപ്പോൾ നമ്മുടെ ടോട്ടൽ സ്ഥലങ്ങളേതൊക്കെയായിരിക്കും ടോട്ടൽ എത്ര സ്ഥലങ്ങള് ഉണ്ടാകും ഞാനൊരു കുറുവ ദ്വീപ് പിന്നെ ബ്രമ്മഗിരി ഹില്ലൊക്കെ കേട്ടിരുന്നു ഓക്കെ ആ ഓക്കെ ആ

ഓക്കെ ആ ഗുണ്ടൽപേട്ട് പക്ഷെ കർണാടക ബോർഡറിലാണോ വരുന്നത് ആ ഓക്കെ ഓക്കെ ആണല്ലെ

നമ്മൾ ഒരു വൺ വീക്കാണ് നോക്കുന്നത് അടുത്ത മറ്റേ ലീവില്ലേ വിഷു ഒക്കെ ലീവല്ലെ അപ്പോൾ ഇവിടുത്തെ പിള്ളേരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പോകണം എന്നൊക്കെ ഓക്കെ ഓക്കെ ഓക്കെ എന്നാലും പറയാം ഫുഡും നിങ്ങൾ എല്ലാം സെറ്റാക്കില്ലേ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അവിടെ കറങ്ങാൻ വരാൻ വണ്ടി ഒന്നും ഇല്ല ആ ആ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ പറ്റുമോ

അത് കുഴപ്പമില്ല അത് സെറ്റാക്കാം പക്ഷെ എന്തായാലും വണ്ടിയൊക്കെ ഉണ്ടാവില്ലേ ആണല്ലെ

നമുക്ക് പിള്ളേരെ ഒക്കെ ഒന്ന് ഹാപ്പി ആക്കണം അത്രയും അതിനു മാത്രമെ ഉള്ളു ഓക്കെ താങ്ക്യു സർ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ പോരെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യു